ഞാൻ ഞാൻ ദീപിക പത്രത്തിൻ്റെ ഏജൻ്റ ആണ് അവിടുന്നാണ് വിളിക്കുന്നത് നിങ്ങൾ തോപ്രാംകുടിയല്ലേ ആ നിങ്ങളുടെ അവിടെ ഈ ഈ ഇന്ന് ഒരു ആക്സിഡ്നെറ്റ് ഉണ്ടായതായിട്ട് ഇപ്പം പറഞ്ഞ് കേട്ട് ഞാൻ പത്രത്തിൽ നിന്നാണ് വിളിക്കുന്നത് ആ അവിടെ ഒരു ആക്സിഡ്നെറ്റ് ഉണ്ടായതായിട്ട് പറഞ്ഞ് കേട്ടു അത് ആ അത് എന്താണ് ബൈക്കും കാറും കൂടെ കൂട്ടിയിടിച്ചതാണോ ആ മുന്നിലത്തെ നിങ്ങൾ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നോ അപ്പം ഇത് അവിടെ ഉണ്ടായിരുന്നോ അതെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പറയാൻ പറ്റുമോ അത് എപ്പോഴാണ് സമയം ആയാ ഏത് സമയത്താണ് ഞങ്ങൾ ആ അത് ആരുടെ ഭാഗത്തെ തെറ്റാണ് അത് ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കെന്തെങ്കിലും ഉണ്ടോ പറയട്ടെ അതെ ബൈക്ക്കാരൻ്റെ ഭാഗത്തെ തെറ്റാണെന്ന് എന്നാണോ പറയുന്നത് ആകും അല്ലേ ആ മറ്റേയാൾക്ക് ഗുരുതരമായിരിക്കും ആ ഉണ്ട്

ആ പിള്ളേരുടെ ഭാഗത്ത് ആ അവിടെ ആ ഒത്തിരി വളവുള്ള പ്രദേശവാണോ അവിടം ഉള്ളത് അ പോ ആ അത്യാവശ്യം ഉണ്ടാക്കുന്നതാണ് അല്ലേ ആ ശരി അപ്പോൾ ആൾക്കാരൊക്ക എത്തി കൂടിയോ അവിടെ സമയത്ത്

അടുത്തായിട്ട് അടുത്ത് ആണോ അടുത്തുള്ള ആശുപത്രി

ആ അപ്പം ആ റോഡിൻ്റെ ഒന്നും കുറ്റങ്ങളും നമുക്ക് കാണും ഇല്ലേ പലപ്പഴായിട്ടിങ്ങനെ അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ടല്ലേ അപ്പം ആക്സിഡന്റിൽ ഒരാള് മരണപ്പെട്ടല്ലേ എന്നാൽ അത് ഞാൻ പത്രത്തിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ അതിൻ്റെ ഒന്ന് വിശദമായ അവസ്ഥ ഒന്നറിയാൻ വേണ്ടി വിളിച്ചതാണേ ആണോ മഴ മഴ ആയിരുന്നല്ലേ അപ്പം മഴ കൊണ്ടും ഓ വളവു ഒക്കെ കൂടെ ആയതുകൊണ്ട് അങ്ങനെ കാണാൻ ബോർഡ് കാണാൻ പറ്റാതെ വന്നു ആ എന്നിട്ടതിനെ പറ്റി ഒന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ അവർ ആക്സിഡൻ്റ ആയ ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ളത് നിങ്ങൾ കണ്ടിടത്തോളം

ഉവ്വല്ലേ ആ പോലീസൊക്കെ എത്തിയിരുന്നോ അവിടെ ഒരു ആ സമയത്ത് പോലീസൊക്ക വന്നോ അതെ അല്ലെ ആ പുറത്ത് ആ പിള്ളേർ പിള്ളേർക്ക് ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ ആയത് കൊണ്ട് വഴി അത്ര നിശ്ചയം ഇല്ലാഞ്ഞായിരിക്കും അതെ അല്ലേ ഏതാണ്ട് ആ ഓക്കെ ശരി എന്നാൽ അതൊന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ശരി എല്ലാവർക്കും താങ്ക്സ്